ഞാൻ ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങള് പോകാറുള്ള പാലക്കാട് ഞങ്ങടെ മലമ്പുഴ ഡാമിലാണ് പോകാറുള്ളത് പാലക്കാടു തന്നെ ഏറ്റവും ഫെയിമസായിട്ടുള്ളതാണ് അറിയാം എല്ലാവർക്കും നമ്മുടെ വൃന്ദാവൻ എന്നൊക്കെ അറിയപ്പെട്ടുന്ന മലമ്പുഴ ഡാമ് അപ്പോൾ അവിടോട്ടാണ് ഞങ്ങള് പോകാറുള്ളത് അപ്പോൾ അവിടെന്നു പറയുമ്പം മലമ്പുഴ ഡാമിലെന്ന് പറയുമ്പം അവിടുത്തെ വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികളായിക്കോട്ടെ പോകുമ്പോഴും കുടുംബത്തോടൊപ്പം പോകണേൽ ഒരുപാട് നടക്കാനും കാണാനുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട് അവിടെ ഒരുപാട് പൂക്കളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എൻട്രി ഫീ ഉണ്ട് അപ്പോൾ അതിലൂടെ നമ്മള് പോകുവാണെങ്കി ഒരുപാട് നടക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കവിടെ പോവുന്ന നടക്കുന്ന സമയത്തവിടെ ഒരുപാട് കച്ചവടക്കാരും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളുടെ കൂടെ പോകുവാന്ന് വെച്ചാൽ ഐസ് ക്രീമും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങി കഴിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാഴ്ച്ചകൾ മലമ്പുഴ ഡാമില് നമുക്കവിടെ പോയാൽ കാണാൻ പറ്റും ഇപ്പോൾ നോക്കാന്ന് വെച്ചാൽ അവിടെ നല്ല വേനൽക്കാലത്ത് അല്ലെങ്കിൽ അവധി സമയത്ത് പോവാന്ന് വെച്ചാലാണ് നല്ല രസണ്ടാവാ അവിടെ ഒരുപാട് മറ്റേ ഈ യക്ഷിയൊക്കെ കാണാനൊക്കെ ഉണ്ടാവും അതുപോലെത്തന്നെ ആദ്യമായിട്ട് പോകുന്നവർക്ക് നന്നായിട്ടത് എഞ്ചോയ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചുറ്റിക്കാണാനൊരുപാട് സമയമൊക്കെ ഉണ്ട് വെച്ചാൽ അവിടെത്തെ ലൈറ്റിംഗ് അറേജ്മെൻ്റ്സ് വെകുന്നേര സമയങ്ങളിലൊക്കെ ഒരുപാട് ലൈറ്റൊക്കെ അറേജ്മെൻറ്റും മറ്റ് കാര്യങ്ങളും ഇണ്ടാവും അതുപോലെ ഡാമൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്